ഹലോ സൈക്കോളജിസ്റ്റ് അല്ലേ ഞാനൊരു കാര്യം കുർ ത്തെക്കുറിച്ചറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എനിക്ക് രാത്രിയിൽ രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല കുറച്ച് സമയം കിടന്ന് കുറേ സമയം കഴിഞ്ഞ് ഒന്ന് അങ്ങോട്ട് കണ്ണ് ഉറങ്ങും പിന്നെ അതേപടി ഒരു പത്ത് മിനിറ്റ് ഒക്കെ അത് കഴിഞ്ഞാൽ വീണ്ടും ഉറക്കം പോയി പിന്നെ നേരം പുലരുവോളം എണ്ണീറ്റങ്ങനെ നടക്കുകയാണ് ഉറക്കം വരില്ല എന്നാൽ രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങാത്ത ക്ഷീണം നമുക്ക് തോന്നുന്നുമില്ല അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ വല്ല യോഗയോ മരുന്നോ എന്താണ് ചെയ്യുക ഇല്ലില്ല ചായ ഒന്നും പതിവില്ല രാവിലെയേ കുടിക്കാറുളളൂ

ഇല്ല ഇല്ല അങ്ങനെ പ്രത്യേ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടാവുമ്പോഴേ ഉളളൂ ടെൻഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒറക്കം ഭയങ്കര കുറവാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഉറക്കം വരാതിരിക്കുമ്പോൾ ആലോചന വരും അങ്ങനെ ഉണ്ടാവും

ഓക്കെ ഏ ഇല്ലില്ല കൂർക്കം വലിക്കാറില്ല അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടൊന്നുമില്ല ഉറങ്ങിയാലല്ലേ കൂർക്കം വലിക്കേണ്ടതുളളൂ ആ ആ ഏതെങ്കിലും യോഗ ചെയ്താൽ മാതിയാവുമല്ലോ അല്ലേ ആ ആ ആ